ഹലോ ആ അതെ അതെ ആ അതെ അതെ പാക്കേജറാണ് നിങ്ങൾ എത്ര പേരുണ്ടാകും ഏതു വണ്ടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏഴ് പേരെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇന്നോവയും ടവേരയും ഉണ്ട് അതിൽ നമ്മൾക്ക് ഇന്നോവ എടുക്കുകയാണെങ്കിൽ ഇന്നോവയ്ക്കും ടവേരക്കും ഏകദേശം സെയിം റേയ്റ്റ് തന്നെയാണ് വരിക അത് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റും ഒന്ന് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഡ്രൈവിംഗ് റെൻറ് മാത്രം എനിക്ക് തരിക എന്നിട്ട് ഫ്യൂവൽ നിങ്ങൾ അടിച്ചിട്ട് അങ്ങനെ പോവുക ഇല്ലെങ്കിൽ ഫ്യൂവലും ഡ്രൈവറുടെ റെൻറും എല്ലാം ഒന്നിച്ചു തരികയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് മൂന്നാർ വരെ ഏകദേശം ഒരു പത്തുറുപ്പ്യ പതിനഞ്ചു ഉറുപ്പ്യയിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും ഇല്ല അങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് ഒരു ഡ്രൈവർ റെൻറ് തരിക ഫ്യുവല് നിങ്ങൾ നോക്കുക അതാകുമ്പോൾ നിങ്ങൾക്ക് ദൂരെ നിന്ന് നിങ്ങളെ ഫ്യൂവലിന് നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ചു നിങ്ങൾക്ക് ദൂരം പോവാൻ പറ്റും അത് അനുസരിച്ചു നിങ്ങൾ ഫ്യുവൽ അടിച്ചാൽ മതി ഏഴുപേരിൽ കൂടുതൽ ഉണ്ടെങ്കില് നമ്മൾക്ക് ഒരു പന്ത്രണ്ട് സീറ്റിൻ്റെ അല്ലെങ്കിൽ പതിനാല് സീറ്റ് ട്രാവലർ ആക്കാം ആ അത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം അതാകുമ്പോൾ ആ ട്രാവലർ ആകുമ്പോൾ കുറച്ചു റേയ്റ്റ് കൂടും നിങ്ങൾക്ക്

അത് നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് ഓക്കെ ശരി ആ അതാകുമ്പോൾ നിങ്ങളെ ബഡ്ജറ്റിന് അനുസരിച്ചു ഫ്യുവൽ അടിച്ചാൽ മതി അത്ര ദൂരം ദൂരം നമുക്ക് പോവാൻ പറ്റും അതാകുമ്പോൾ ഒരു ആ അതൊരു മിനിമം പൈസ നിങ്ങൾ തരേണ്ടി വരും അത് നിങ്ങൾക്ക് ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് ആയിരിക്കും ലാഭം ഇത് നിങ്ങൾ മിനിമം ഇത്ര പൈസ തരണം ഓക്കെ ഓക്കെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ ശരി